എന്റെ പ്രിയപ്പെട്ട സൈക്കിള്ന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഗിയർ സൈക്കിള് ഡിസ്ക് സൈക്കിള് പവർ ബ്രേക്ക് പിന്നതുപോലെ തന്നെ എല ഇലക്ട്രിക് സൈക്കിള് ഇതൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ട സൈക്കിള് എന്ന് പറയുന്നത് എന്റെ സൈക്കിള് എന്നു പറയുന്നത് ഗിയർ സൈക്കിളാണ് പിന്നെ എന്താ പറയാ നമ്മുടെ യാത്രക്കാരൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗിയർ സൈക്കിൾ ആണ് കാരണം നമുക്ക് കയറ്റം ചവിട്ടാനും എല്ലാത്തിനും നല്ല സുഖമാണ് ഗിയർ സൈക്കിൾ യൂസ് ചെയ്യുമ്പം അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരും നമ്മൾ എടുക്കുന്നത് കൂടുതലും എടുക്കുന്നത് ഗിയർ സൈക്കിള് തന്നെയാണ് പിന്നേന്നു പറയാണേൽ തന്നെ എന്താ പറയാ ഗിയർ സൈക്കിൾ പറയുമ്പോൾ എന്താപറയാ നമുക്ക് കൊണ്ട് നടക്കാൻ ഈസീ ആണ് മാത്രമല്ല നമുക്ക് സാധാ സൈക്കിളൊക്കെ ആവുമ്പോൾ നമുക്കിങ്ങനെ കയറ്റത്തിൽ ചവിട്ടി വലിഞ്ഞ് കയറേണ്ടിവരും പക്ഷേ ഗിയർ സൈക്കിളാവുമ്പോൾ അതിൽ കുറെ മാറ്റംവരും കാരണംന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഗിയറിലും വെച്ച് എന്താ പറയാ നമ്മുടെ ഗിയർ സൈക്കിൾ നല്ല സിംമ്പിൾ ആയിട്ട് കയറിപ്പോകും എന്നുള്ളതാണ് വേറെ പറയുന്നത് പിന്നെ ഡിസ്ക് സൈക്കിളൊക്കെയാവുമ്പോൾ എന്ന് പറയുമ്പോൾ ബ്രേക്ക് നല്ല ബ്രേക്കൊക്കെ ഉള്ള സൈക്കിളായിരിക്കും ഡിസ്ക് സൈക്കിൾന്നൊക്കെ പറയുന്നത് പിന്നെ ഇലക്ട്രിക് സൈക്കിൾനേ കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ എന്താപറയാ കറണ്ടിൽ ഇലക്ട്രിക്കിൽ ഓടുന്നയായിരിക്കും ഇലക്ട്രിക് സൈക്കിള്ന്ന് പറയുന്നത് അങ്ങനെയാണിപ്പോൾ സൈക്കിൾന്റെ കുറെ വ്യത്യാസങ്ങളൊക്കെയുള്ളതെന്ന് പറയുന്നത് പിന്നെ യാത്രക്കാർ ഏറ്റവും കൂടുതൽ സൈക്കിള് ഉപയോഗിക്കുന്നത് ഗിയർ സൈക്കിളാണ് എന്നുവെച്ചാൽ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള സൈക്കിളാണ് ഗിയർ സൈക്കിൾ എന്നുപറയുന്നത് അതുകൊണ്ടാണ് യാത്രക്കാർ ഏറ്റവും കൂടുതൽ ഈ ഗിയർ സൈക്കിള് ചൂസ് ചെയ്യുന്നത്